ഇന്ത്യയിലെ ഗതാഗത സംവിധാനങ്ങളെന്ന് പറയുമ്പോൾ റോഡ് വഴിയുള്ള സംവിധാനമുണ്ട് ജല ഗതാഗതമുണ്ട് വിമാനം റെയിൽവേ ഇതൊക്കെയാണ് നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾ സാധാരണക്കാരായ ആൾക്കാർ ഉപയോഗിക്കുന്നത് കൂടുതലും ഉപയോഗിക്കുന്നത് റെയിൽവേയും റോഡ് വഴിയുള്ള ഗതാഗതവും ആണ് അവർ ആശ്രയിക്കുന്നത് പക്ഷേ റെയിൽവേ വഴി നമ്മൾ ട്രെയിനിൽ ഒരുപാട് യാത്രയ്ക്ക് സുരക്ഷാ ഭീഷണികളുണ്ട് രാത്രികാലങ്ങളിൽ സ്ത്രീകളെയും കുട്ടികളും ഒറ്റക്കൊക്കെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഉണ്ട് പിന്നെ ഓരോ സ്ഥല സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിരിക്കും അവിടുത്തെ പിന്നെ സുരക്ഷയെന്ന് പറയുന്നത് അതുപോലെ തന്നെ റോഡ് വഴിയുള്ള ഗതാഗതമാണെങ്കിലും നല്ലരീതിയിലുള്ള റോഡുകളൊന്നുമായിരിക്കില്ല എല്ലായിടത്തും ഉള്ളത് ഒരുപാട് അപകടങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയമാണ് ഒരുപാട് ട്രാഫിക്കും തിരക്കും അപ്പോൾ റോഡ് വഴിയുള്ള സംവിധാനങ്ങൾ നമുക്ക് യ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നതിനും ഒക്കെ താമസങ്ങളുണ്ട്